നമ്മളുടെ സമൂഹത്തിലെ യുവാക്കൾ പാരമ്പര്യ നൃത്ത രീതികൾ പഠിക്കാൻ വലിയ താൽപ്പര്യം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ് അതും ചെറിയ രീതിയിൽ ഉള്ളൊരു താൽപ്പര്യമൊന്നുമല്ല അവര് കാണിക്കുന്നത് അത്യാവശ്യം വലിയ നിലയിലുള്ള താൽപ്പര്യം തന്നെയാണവര് കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലെ യുവാക്കൾ അത് അതായത് ഒരു എട്ട് ഒമ്പത് ക്ലാസിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ കണ്ട് വരുന്നൊരു സ്വഭാവ രീതി എന്താന്ന് വെച്ചാൽ അവരൊരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസൊക്കെ ആകുന്ന ആ ഒരു സമയത്ത് കലാമണ്ഡലം കലാക്ഷേത്ര എന്നീ നൃത്തം അഭ്യസിക്കുന്ന അല്ലെങ്കിൽ കല അഭ്യസിക്കുന്ന പാഠശാലകളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവടെ പോകുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കിട്ടുന്ന ഗുരു തന്നെയാണ് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഗുരു പരിശീനം വേറെ ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് ഇത്രയും അളവിൽ നമുക്ക് കിട്ടിയെന്ന് വരുന്നില്ല ഇവിടെ ഇപ്പം കലാമണ്ഡലമായിക്കോട്ടെ കലാക്ഷേത്രം ആയിക്കോട്ടെ ഇവിടെ ഒക്കെ നമ്മള് നൃത്തം അഭ്യസിക്കാൻ പോകുമ്പോൾ അവിടെ നമുക്ക് നൃത്തം ത്തിനോടൊപ്പം നമുക്ക് പഠിക്കും നമുക്ക് വേറെ വല്ല കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി പഠിക്കാൻ പറ്റും ഇപ്പോൾ ബി എ ആയാലും അങ്ങനെ ഓരോ ഇതും മെയിൻ കോഴ്സായിട്ട് നമുക്ക് നൃത്തം പഠിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ പഠനത്തോടൊപ്പം അവർക്ക് നൃത്തം അഭ്യസിക്കാനും നൃത്തം വലിയ രീതിയിലുള്ള കരിയറാക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരികയാണ് ഈ കലാമണ്ഡലം കലാക്ഷേത്രം പോലെ ഉള്ള പാഠശാലകൾ നമുക്ക് ചെയ്യുന്നത് പിന്നെ അവിടേ എന്ന് പറയുമ്പോൾ നമ്മള് നമുക്ക് നമ്മുടെ ഉള്ളില് ഒരു നൃത്ത കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മള് ഈ സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമ്മള് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ആക്കാൻ നമ്മളെ സഹായിക്കുന്നവരാണീ കലാമണ്ഡലം കലാക്ഷേത്ര എന്നുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഗുരുക്കള് ഇവിടെ നമുക്ക് ഇനി പിന്നീട് നമ്മുടെ കരിയർ നമ്മുടെ ജീവിതത്തിൻ്റെ കരിയർ നമുക്ക് നൃത്തം ആക്കണമെന്നുണ്ടെങ്കിൽ ഏത് നൃത്തമായിക്കോട്ടെ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി ഏതായാലും നമുക്ക് ഇവിടുന്ന് നല്ല രീതിയില് പഠിക്കാൻ പറ്റും